കേരളത്തിലെ വ്യവസായ അന്തരീക്ഷം ഹാ കഷ്ടം എന്നല്ലാതെ എന്ത് പറയാനാണ് ഇവിടെ ഒരു വ്യവസായം തുടങ്ങാനോ അത് മുന്നോട്ട് കൊണ്ടുപോകാനോ ആർക്കും സാധിക്കാത്ത അവസ്ഥയാണ് ഈ നാട്ടിൽ യൂണിയനിൽ യൂണിയനുകൾ രാഷ്ട്രീയപാർട്ടികൾ രാഷ്ട്രീയ പ്രവർത്തകർ ഇവർ ഒരു വ്യവസായത്തെയും മുന്നോട്ടുകൊണ്ടുപോകാനായി ഒരിക്കലും കേരളത്തിലെ ആൾക്കാരെ സമ്മതിക്കുകയും ഇല്ല ഒരു വ്യവസായം മുന്നോട്ടുകൊണ്ടുപോകുകയും ഇല്ല അതുകൊണ്ടുതന്നെയാണല്ലോ കേരളത്തിൽ ആകപ്പാടെ ഉള്ള രണ്ട് വരുമാന മാർഗ്ഗങ്ങൾ ഒന്ന് മദ്യവും വേറൊന്ന് ലോട്ടറിയുമാണ് വേറെ എന്ത് വരുമാനമാർഗ്ഗമാണ് കേരളത്തിനുള്ളത് ഒന്നും ഇല്ല അതിന് കാരണം ഈ കേരളത്തിലെ നശിച്ച രാഷ്ട്രീയ അവസ്ഥ തന്നെയാണ് ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു വ്യവസായ സംരംഭം കെട്ടിപ്പെടുക്കുന്നതിന് തൊട്ടുമുമ്പ് അത് ഫാക്ടറി അല്ലെങ്കിൽ ആ വ്യവസായസംരംഭം ഓപ്പൺ ചെയ്യുന്നതിനു മുമ്പ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും കൊടികൾ എല്ലാ യൂണിയൻ്റെയും കൊടികൾ അതിൻ്റെ മുമ്പിൽ കാണും അതിൽ തട്ടി മാത്രമേ നമുക്കൊരു വ്യവസായവുമായി മുന്നോട്ട് പോകാൻ സാധിക്കുകയുളളൂ പിന്നെ വ്യവസായം തുടങ്ങുന്നതിന് മുമ്പായിട്ടുതന്നെ യൂണിയനുകളെ രാഷ്ട്രീയ പാർട്ടികളെ എല്ലാവരേയും സന്തോഷിപ്പിച്ച് അവർക്ക് കൊടുക്കേണ്ട വീതങ്ങളും കൊടുത്ത് അവർ പറയുന്ന പറയുന്ന പിരിവുകളും കൊടുത്ത് മുന്നോട്ട് പോകുമ്പോൾ നമുക്കൊരിക്കലും ഒരു വ്യവസായം കേരളത്തിൽ തുടങ്ങുവാനോ ആ വ്യവസായവുമായി മുന്നോട്ട് പോകാനോ പറ്റാത്ത സാഹചര്യമാണുള്ളത് ഈ കേരളത്തിൽ ഉണ്ടായിരുന്ന നല്ല വ്യവസായങ്ങളെല്ലാം അവർ കേരളത്തിന് പുറത്തേക്ക് അവർ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഗുജറാത്തിലേക്ക് പോയാലും ഡൽഹിയിലേക്ക് പോയാലും കേരളത്തിന് പുറത്ത് എവിടേക്ക് പോയാലും അവർ താമസിക്കുന്ന വീടിൻ്റെ മുകളിലൊരു ചെറിയ ഒരു കുടിൽ വ്യവസായമെങ്കിലും ഉണ്ടാവും അതിലുള്ള വരുമാനം കൊണ്ട് ആ കുടുംബം കഴിയുന്നും ഉണ്ട് തീർച്ചയായിട്ടും അതാണ് ഏറ്റവും നല്ല ഒരു മാതൃക കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ വ്യവസായങ്ങൾ പൂട്ടിക്കെട്ടുന്നത് അല്ലാതെ ഇവിടെ മുന്നോട്ട് പോകാനായിട്ട് യാതൊരു സാഹചര്യവും ഉണ്ടാക്കുന്നില്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് തൊഴിൽ കൊടുത്തുകൊണ്ടിരുന്ന ഒരു വലിയൊരു കമ്പനി ഈ അടുത്ത നാളുകളിൽ കേരളത്തിന് പുറത്തേക്ക് തെലുങ്കാനയിലേക്ക് പോകുകയും അവിടുത്തെ ഏറ്റവും വലിയൊരു ഫാക്ടറി ഗ്രൂപ്പായി മാറുകയും ചെയ്തു വ്യവസായമേഖലയിൽ കടന്നുവരുന്ന ഓരോ വിദേശ കമ്പനികളും എപ്പോഴും അവർ ആഗ്രഹിക്കുന്നത് കേരളത്തിന് പുറത്ത് ഒരു വ്യവസായം തുടങ്ങാൻ വേണ്ടിയാണ് ദൈവം കനിഞ്ഞ് അനുഗ്രഹിച്ച ഒരു വലിയ നല്ല ഒരു ഭൂപ്രകൃതി നല്ല റോഡുകൾ നല്ല സമുദ്രം ജലഗതാഗത മാർഗ്ഗങ്ങൾ നല്ല എയർപോർട്ടുകൾ എല്ലാം കേരളത്തിൽ ഉള്ളപ്പോൾ ഏറ്റവും അടുത്ത് ഇവയെല്ലാം ലഭ്യമായിരിക്കെ കേരളത്തിലെ മാത്രം വ്യവസായങ്ങൾ കീഴോട്ട് തലകുത്തിമറിഞ്ഞ് പോകാൻ കാരണം ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകരും യൂണിയനുകളും മാത്രമാണ് ഈ യൂണിയനുകളെ യൂണിയനുകളെ നിയന്ത്രിക്കാതെ ഈ യൂണിയനുകളുടെ ആ ധാർഷ്ട്യവും തന്റേടവും ഒഴിവാക്കാതെ ഒരിക്കലും ഈ കേരളത്തിൽ ഒരു വ്യവസായകമായി മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല കേരളത്തിൻ്റെ അതിർത്തി കടന്നുകഴിയുമ്പോൾ തന്നെ ഒരുപാട് വ്യവസായങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ ഒരിക്കലും കേരളത്തിൽ ഒരു വ്യവസായി വരികയോ പണം നിക്ഷേപിക്കുകയോ ചെയ്യില്ല അതിനു പകരം അവർ ചെയ്യുക ആ പൈസ ബാങ്കിൽ ഇട്ടാൽ സമാധാനമായിട്ടിരുന്നുകൂടെ എന്നൊരു ചിന്താഗതിയാണ് മനസമാധാനം വല്ലതും ഉണ്ടാകുമല്ലോ എന്നുള്ള ചിന്താഗതിയിലേക്ക് ആൾക്കാർ മാറിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെ ഈ കേരളം നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ എന്ത് വ്യവസായത്തെപ്പറ്റി ഇവിടെ പറയാനാണ് എന്ത് കാര്യങ്ങൾ സംസാരിക്കാനാണ് ടൂറിസം വ്യവസായം ഇവിടെ ചെയ്യാൻ പറ്റും നമുക്കിവിടെ നല്ല റോഡുകളും നല്ല എയർപോർട്ടുകളും നല്ല ജലഗതാഗത മാർഗങ്ങളും ഉള്ളപ്പോൾ ഏത് ബിസ്സിനസ്സിലേക്കും ഏത് വ്യവസായത്തിലേക്കും നമുക്ക് പോകാൻ സാധിക്കും പക്ഷേ ഇതിനൊന്നും നമ്മെ അനുവദിക്കാതെ നമ്മളെ കീഴേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ രാഷ്ട്രീയ പാർട്ടികളും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ അവസ്ഥയ്ക്ക് ഒരു മോചനം വരാതെ ഒരിക്കലും കേരളത്തിലൊരു വ്യവസായം ഉണ്ടാവുകയില്ല ഇവിടുത്തെ യൂണിയനുകളെ കടിഞ്ഞാൺ ഇട്ട് നിർത്തേണ്ടത് ഏറ്റവും അത്യാവശ്യമായുള്ള കാര്യമാണ് എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുളളൂ